ഹലോ ഇത് അൽഹിന്ദ് ട്രാവെൽസ് അല്ലെ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടവേര ആണ് വേണ്ടത് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ മെംബേർസ് ഉണ്ടാവും എനിക്കൊരു ഫുൾ ഡേയ്ക്കാണ് വേണ്ടത് ഒരു ഒരു ഫാമിലി ഫംഗ്ഷനാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഫുൾ ഡേ മൊത്തമായിട്ടും വേണം കുറെ ടൂറിസ്റ്റ് പ്ലേറ്റ് പ്ലേസ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ബേസ് ആണോ അതോ ഡേ ബേസിലാണോ വരുന്നത് ഡേ ബേസിലാണ് വരുന്നത് അല്ലെ ആ നാല് അഞ്ഞൂറ് അല്ലെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് ഓക്കെ ഓക്കെ അപ്പം ഡ്രൈവറൊക്കെ നമ്മുടെ പരിപാടി കഴിയുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ ഫുൾ ടൈം ആ ഓക്കെ ആ രാവിലെ പിക്കപ്പ് കാര്യങ്ങളൊക്കെ കറക്ട് ടൈമിന് വന്ന് പിക്കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഓക്കെ മോർണിംഗ് തന്നെ വരുന്നുണ്ടല്ലേ അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ നമുക്ക് നമ്മുടെ ഫുൾ പ്രോഗ്രാംസ് കഴിയുന്നവരെ നമ്മളിപ്പം അവൈലബിൾ ആയിരിക്കും അല്ലെ ഓക്കേ അപ്പം ഇത് മോർണിംഗ് എപ്പോൾ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് നാളത്തേക്കാണ് അപ്പം നാളത്തേക്ക് ഇതൊന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കേ ആ നാളത്തേക്ക് ആ നാളെ മോർണിംഗ് തന്നെയാണ് ഏർലി മോർണിംഗ് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴേക്കും ഒന്ന് പിക്ക് ചെയ്യണം ആ ഓക്കേ ഓക്കേ ആ ഞങ്ങൾ ഇവിടെ തന്നെ പുൽപള്ളി തന്നെയുണ്ടാവും അപ്പോൾ പുൽപള്ളിയിൽനിന്ന് പിക്ക് ചെയ്താൽ മതി ഓക്കേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പതിനഞ്ചുപേരാണ് വരുന്നത് എന്റെ പേര് ജിഷ്ണു എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്താൽ മതി